ആ ഹലോ അതെ ആ അതെ അതേ ആഹാ എന്താണ് ചോദിച്ചോളൂ ആ ഹാ മെമ്പർഷിപ്പൊക്കെ എടുക്കാനായിരിക്കും അല്ലേ ആദ്യമായിട്ട് വരുന്നതല്ലേ ങാ ഹാ ആദ്യം നമ്മുടെ ഇപ്പം കൊച്ച് എവിടെ പഠിക്കുന്നത് കോളേജിൽ പഠിക്കുവാണോ അതോ വർക്ക് ചെയ്യുന്ന്ത് അല്ല അല്ലേ ആ ഹാ അപ്പം ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വരാം നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ആ ഹാ നാളെ തന്നെ നേരിട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്യാനുണ്ടായിരുന്നു അപ്പം അത് ഫിൽ ചെയ്തിട്ട് നമ്മൾക്ക് അതിന് പ്രൊസീജ്യറൊക്കെ അതിന് ശേഷമാണ് ചെയ്യുന്നത് മെമ്പർഷിപ്പ് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് രണ്ട് കാർഡ് തരും അപ്പം ആ കാർഡ് ആണ് നമ്മൾ ബുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ച്വ്യ്യുന്നത് അപ്പോൾ ആ ഒരു കാർഡിൽ ഒരു ബുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ആ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ആ ഒരു കാർഡ് അവിടെ വയ്ക്കണം എന്നിട്ട് തിരിച്ചു റിട്ടേൺ ചെയ്യുമ്പോഴാണ് കാർഡ് തിരിച്ചു തരത്തുളളൂ അപ്പം നമ്മൾ രണ്ട് കാർഡ് കൊണ്ടു വന്നാൽ നമ്മൾക്ക് ഒന്നിച്ചു രണ്ട് ബുക്ക് എടുക്കാൻ പറ്റും

അങ്ങനെ വീണ്ടും ചെയ്തു തരാനായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഒന്നുംകൂടി ആ ഒരു ആഴ്ച്ചയും കൂടി നീട്ടി വേണം എന്നൊക്കെ പറഞ്ഞാൽ അതേ സമയം കറെക്റ്റ് ഡേയ്റ്റിൽ ആ അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു ആ ബുക്ക് റിട്ടേൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിന് ഫൈൻ ഉണ്ടായിരിക്കും ഫൈൻ ഇടുന്നത് ആണ് ആ ഫൈന് ഒരു ദിവസം അഞ്ച് രൂപയാണ് ഫൈന് ഒരു ഒരു ദിവസം വൈകിയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമാണെങ്കിൽ നമ്മൾ പത്തു രൂപയാക്കും അപ്പോൾ ആ അപ്പോൾ കറെക്റ്റ് ഡേയ്റ്റിൽ തന്നെ എന്തിനാണ് വെറുതെ പൈസ കളയണം അപ്പം ആ കറെക്റ്റ് ഡേയ്റ്റിൽ തന്നെ പൈസ അല്ലെങ്കിൽ പൈസ അടക്കാണ്ട് ബുക്ക് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയിൽ ആ പൈസ ഇരിക്കും

ഏ ഇപ്പോൾ എങ്ങനത്തെ ടൈപ്പ് ഇപ്പോൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പുസ്ത്കമാണോ വേണ്ടത് അതോ സാധാ

ആ ഓ അങ്ങനത്തെ ടൈപ്പ് എല്ലാ തരത്തിലുള്ള ബുക്ക് നമ്മുടെ ഈ ലൈബ്രറിയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വച്ചാൽ മെമ്പർഷിപ്പ് എടുത്ത് കാർഡ് മേടിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കുകൾ സെർച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ

അത് കുഴപ്പമില്ല നമ്മൾക്ക് എടുക്കാം ആ എടുക്കാം എപ്പ വേണമെങ്കിലും ഇവിടെ വരാം നിർബന്ധമായിട്ടും ആ കാർഡ് കൈയിൽ ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് കയറുന്നതിന് നിങ്ങളുടെ ഐഡെന്റി കാർഡ് ഉണ്ടെങ്കിൽ അത് വച്ചു നമ്മുടെ ഈ കോളേജിൽ നിന്ന് തന്നെ അല്ല കോളേജിൽ നിന്ന് അല്ല നമ്മടെ ഈ ലൈബ്രറിയിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഓരോ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എൻട്രി ചെയ്യാൻ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വച്ചു എൻട്രിയ്യാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ എഴ്തി ഒപ്പിട്ട് അങ്ങനെ കയറാൻ പറ്റത്തുളളൂ അപ്പോൾ ആ രാവിലെ നമുക്ക് എട്ടു മണി തൊട്ട് വൈകിട്ട് അഞ്ചുമണി ആറുമണി വരെ ഉണ്ടായിരിക്കും എട്ടുമണി തൊട്ട് വൈകിട്ട് ആറുമണി വരെ

ഹോളിഡേ നമ്മൾ അപ്പോൾ ആ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളൊക്കെ വരികയില്ലേ അന്ന് ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും ലൈബ്രറി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി അന്ന് തുറക്കുമോ ഇല്ലയോ എന്ന് ആ അപ്പോ കുട്ടി എന്നാണ് വരുന്നത് നാളെ വരുമോ ആ അ

വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട